ഹെഡ്ഫോണിൻ്റെ പോസിറ്റീവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ചെവിയിൽ നമുക്ക് പാട്ട് കേൾക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഹെഡ് ഫോണ് ഹെഡ് ഫോണ് രണ്ട് രീതിയിലുള്ള മൂന്ന് രീതിയിലുള്ള ഹെഡ് ഫോണ് ഉണ്ട് നമുക്ക് ഒന്ന് വയേർഡ് ഹെഡ് ഫോണും ഒന്ന് വയറില്ലാത്ത ഹെഡ് ഫോണും പിന്നൊന്ന് ഇയർ പോടും ഇയർ പോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഇതുമാത്രമേ ഉണ്ടാവുള്ളു നമുക്ക് ചെവിയിൽ നല്ല രീതിയിൽ വെച്ച് പാട്ട് കേൾക്കാനും പല സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് പോവാനും എളുപ്പം ഇയർ പോടാണ് വയേർഡ് ഹെഡ് ഫോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചാർ നമുക്ക് കേൾക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുള്ളൂ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹെഡ് സെറ്റ് അത് ബ്ലൂ ടൂത്തിൻ്റെ ഉണ്ട് അതാവുമ്പം നമുക്ക് കുറച്ചുംകൂടെ എളുപ്പാണ് കൊണ്ട് നടക്കാനൊക്കെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാരണമെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ചെവിയിൽ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് കഴുത്തിൽ നെക് ബാൻഡ് ആയിട്ട് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് എവിടെ പല സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോവാനൊക്കെ നല്ലതാണ് പിന്നെ ഇതിൻ്റെയൊക്കെ നെഗറ്റീവെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമുക്ക് ചെവി ഭയങ്കരമായിട്ട് വേദന എടുക്കും പിന്നെ ചെവി കേൾക്കാണ്ടായിപ്പോവും അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെയുണ്ട് പിന്നെ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും വണ്ടിലൊക്കെ പോവുകയാണെങ്കിൽ നോയ്സ് കേൾക്കാണ്ടിരിക്കാനും എല്ലാ കാര്യങ്ങൾക്കും കുറച്ചുംകൂടെ നല്ലത് ഹെഡ് ഫോൺ ഇല്ലാണ്ട് നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്നപോലെ പാട്ട് കേൾക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചുംകൂടെ നല്ലതായിരിക്കും ഇതാണ് എൻ്റെ നെഗറ്റീവെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ